ഹലോ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എവിടെയായിരുന്നു ആ നിങ്ങൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തിയെന്ന് എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് ആണോ ആ ഓക്കേ ഓക്കേ ഞാനിവിടെ ഈ സപ്ലൈകോ ഇല്ലേ സപ്ലൈകോ സപ്ലൈകോ മാവേലി അതിൻ്റെ തൊട്ട് താഴെയുണ്ട് തൊട്ടു താഴേയൊരു പലചരക്ക് കടയില്ലേ ഒരു ബഷീർ ഇക്കാൻ്റെ ഒരു പലചരക്ക് കടയില്ലേ ആ അതിൻ്റെ അടുത്താണ് ഞാനുള്ളത് നിങ്ങൾ എവിടെയായിരുന്നു ആണോ ആ എന്നാൽ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഒരു താഴേക്ക് ഒരു ഇറക്കമുണ്ട് അവിടെ ആണ് സപ്ലൈകോ ഉള്ളത് സപ്ലൈകോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പലചരക്ക് കടയുള്ളത് അവിടെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഞാനുണ്ട് ആ ആ ആ ആ എന്നാൽ ചേട്ടൻ എപ്പോൾ എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും ഓക്കേ അഞ്ച് മിനിട്ട് അല്ലേ ഓക്കേ ഓക്കേ ഞാൻ ഇവിടെ നിൽക്കാം കേട്ടോ ഓക്കേ ചേട്ടാ ഓക്കേ